ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാൽ പാൽ വാങ്ങുക എന്താ അടുപ്പ് കത്തിക്കുക നമ്മൾ പാലരിച്ച് നമ്മൾ പത്രത്തിലോട്ട് ഒഴിക്കുക ആ പത്രം അടുപ്പിലോട്ട് വെക്കുക പാല് തിളച്ച് കഴിയുമ്പോൾ നമ്മളെന്തൊക്കെ അതിനകത്ത് പാ ചായ പൊടി ഇടാം ചായ പൊടീം പൻസാരേം ഇടാം അപ്പം നല്ല തിളച്ച് കഴിയുമ്പോഴത്തേന്നും നമുക്ക് നല്ല ഒരു ചായ കിട്ടും കാരണം ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും ചായ ഭയങ്കര ഇഷ്ട്ടമാണ് നല്ല ഇഷ്ട്ടപ്പെട്ട ഒരു ഡ്രിങ്കാണ് ചായ എന്ന് പറയുന്നത് കാരണം ചായാന്നാ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ് ചായ എന്ന് പറയുന്നത് എവിടെ പോയാലും നമുക്ക് ചായ നിർബന്ധമാണ് ചായ കുടിച്ചാൽ തലവേദന മാറണവർ ഒക്കെയുണ്ട് അതായത് തലവേദനക്ക് എല്ലാത്തിനും ചായ കുടിക്കുന്നവരൊക്കെ തന്നെയാണ് നമ്മുടെ ഏ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതാണ് ചായ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് ഒരു പണിയില്ല ഒന്ന് ജസ്റ്റ് പാൽ തിളപ്പിക്കുക ചായപ്പൊടി ഇടുക പഞ്ചസാര ഇടുക ഇത്രയെ ഉള്ളു ചായ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന പണി എന്ന് പറയുന്നത് മാത്രമല്ല എവിടെ ചെന്നാലും നമുക്കിപ്പംചായ മാത്രോള്ളു എല്ലാവർക്കും ചായയോട് ഭയങ്കര താൽപര്യമാണ് ഇപ്പോഴുള്ള എല്ലാ സമൂഹത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ചായയോട് ഭയങ്കര ഇഷ്ട്ടമാണ് എവിടെ പോയാലും ആൾക്കാർക്ക് ചായ മാത്രം മതി ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതീന്ന് പറയുന്നത് പാൽ തിളപ്പിക്കുക പഞ്ചസാര ഇടാം ചായപ്പൊടി ഇടുക ഇങ്ങനെയാണ് ഞാൻ ചായ ഉണ്ടാക്കാറ്